ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ട ചില വ്യവസായങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താണെന്നു വെച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വ്യവസായങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ വ്യവസായങ്ങളും കാര്യങ്ങളൊക്കെയുണ്ട് നമ്മൾക്ക് തുണിത്തരങ്ങൾ തുണിത്തര വ്യവസായം അങ്ങനത്തെ പല രീതിയിൽ അപ്പം മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണിത്തര വ്യവസായമാണ് കൂടുതലായിട്ടും കോഴിക്കോട് ജില്ലയിൽ അങ്ങിങ്ങ് നടക്കുന്നത് കാരണം എന്താണെന്നു വെച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് തുണി ഉടുക്കാണ്ടിപ്പം എന്തായാലും പുറത്തിറങ്ങാനൊന്നും പറ്റില്ലല്ലോ തുണിയാണ് മെയിനായിട്ടുള്ളൊരു വ്യവസായം പിന്നെ ചെരുപ്പ് വ്യവസായം അതിൽ ചെരുപ്പുണ്ടാക്കുന്ന കമ്പനികളും ഇഷ്ടംപോലെയുണ്ട് കോഴിക്കോട് അതൊരു വ്യവസായം തന്നെയായിട്ട് അതായത് ഗവണ്മെൻ്റിൻ്റെ ഒരു വ്യവസായം തന്നെ ആയിട്ട് ഇപ്പോൾ നമുക്ക് കണ്ടുവരുന്നതാണ് അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനത്തെ ചെരുപ്പ് വ്യവസായം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുണ്ട് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻ്റർലോക്ക് കാര്യങ്ങളൊക്കെ എല്ലാ വീട്ടിലും നമ്മൾ ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ അതിനനുസരിച്ചുള്ള മോൾഡ് മോൾഡുണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ റബറിൻ്റെ മോൾഡാണ് കൂടുതലായിട്ടും ഈ ഇൻ്റർലോക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതിൻ്റെ മോൾഡ് വേറെ ഒരു വ്യവസായമായിട്ട് തുടരുന്നുണ്ട് അതിന് കിലോയ്ക്കാണ് റെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ കൊള്ളില്ലാത്ത റബറും കാര്യങ്ങളൊക്കെ അതിനകത്ത് യൂസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് റബറിൻ്റെ ഇത് വരുന്നത് അപ്പോൾ അത് കുറേ എന്താ പറയുക നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഉണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയേർസ് ടയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ജെ കെ ടയറിൻ്റെ കമ്പനി തന്നെ നമ്മൾക്ക് കോഴിക്കോട് ജില്ലയിൽ ഉണ്ട് അപ്പോൾ പല രീതിയിൽ ഇപ്പോൾ എണ്ണകൾ എണ്ണ അതായത് കോക്കനട്ട് എണ്ണ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ പാം ഓയിൽ സൺഫ്ലവർ ഓയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടാക്കുന്ന പല പലതരത്തിൽ ഉള്ള ബിസ്സിനസ്സുകൾ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതിനൊക്കെ മെയിനായിട്ടുള്ള വെല്ലുവിളിയെന്ന് പറഞ്ഞാൽ ദിനംപ്രതി ഇങ്ങനെ ഇതിൻ്റെ ഒരോ സാധനങ്ങളുടെയും വില കൂടുന്നതുകൊണ്ട് ഈ ഇപ്പോൾ ആൾക്കാർക്ക് കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സാധനത്തിൻ്റെ വില കൂടുന്നതിനുസരിച്ച് ഇവർ ഇവരുടെ പ്രൊഡക്ടിനും വില കൂട്ടും അപ്പം ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്